നമ്മുടെ നാട്ടിൻ പുറത്ത് ആരംഭിച്ച് വിജയിച്ച ഒരു സംരംഭമാണ് കുടുംബശ്രീയിലെ ചേച്ചിമാരൊക്കെ നടത്തിയിട്ട് ഉള്ള ഒരു അച്ചാറ് കമ്പനി ആദ്യം അവര് ചെറിയൊരു സംരംഭം പോലെ തുടങ്ങിയതാണ് ഇപ്പം അവർക്ക് നല്ലൊരു കമ്പനി ഉണ്ട് അവര് പല പല ഇതിലേക്കും അച്ചാറുകള് ഡെലിവറി ഒക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ അവര് ഒരുപാട് അച്ചാറുകള് തരത്തൊക്കെ ഉണ്ടാക്കാറുണ്ട് മാങ്ങച്ചാറ് മീനച്ചാറ് നാരങ്ങാച്ചാറ് നെല്ലിക്കാച്ചാറ് അങ്ങനെ ഒരുപാട് അച്ചാറുകളൊക്കെ ഉണ്ടാക്കിയിട്ട് വിൽക്കാറൊക്കെ ഉണ്ട് നാട്ടുകാരുടെ നല്ല സഹകരണവും പിന്നെ അവർക്കെല്ലാവരുടെയും അടുത്തുള്ള ആ ഒരു സ്നേഹവും എല്ലാം കൊണ്ട് അവര് നല്ലോണം ആ ഒരു മേഖലയില് അവർക്ക് നല്ലോണം വളരാൻ പറ്റി അങ്ങനെ ഒരുപാട് സംരംഭങ്ങൾ ഉണ്ട് പിന്നെ ഹോട്ടലൊക്കെ നടത്തുന്നവരൊക്കെ എല്ലവരുടെ അടുത്തും നല്ല സ്നേഹത്തിലൊക്കെ പെരുമാറി അവരുടെ നല്ല ഭക്ഷണവും കൈപ്പുണ്യവും എല്ലാം കൊണ്ടും അവര് നല്ല ഉന്നതിയിലെത്തിയ ആൾക്കാരൊക്കെ ഉണ്ട്